നക്ഷത്രത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പറയുവാണെങ്കിൽ തന്നെ എന്താണ് പറയുക നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് നമ്മള സ്പേസിലോട്ടുള്ള കുറേ പ്രപഞ്ചത്തിൻ്റെ അങ്ങോട്ടേക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കുറേ ഏലിയൻസ് പോലെ തന്നെ കുറേ ജീവികൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുവാണെങ്കിൽ തന്നെ എന്താണ് പറയുക എന്താണ് കുറേ കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ കണ്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ പ്രപഞ്ചത്തിൻ്റെ ശാ നക്ഷത്രത്തിനെ കുള്ക്ക് കുറിച്ചൊക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും അറിവും കിട്ടുമെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് പഠിക്കാനാവുന്നതെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ എന്താണ് പറയുക പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്താണ് പറയുക സ്പേസിൻ്റെ അങ്ങോട്ടേക്ക് പോകുവാണെങ്കിൽ തന്നെ കുറേ എന്താണ് പുതിയ ഏലിയൻസ് പ്രപഞ്ചത്തിൽ തന്നെ പുതിയ ഏലിയൻസ് ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ കണ്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറെ കാര്യം എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ തന്നെ എന്താണ് പറയുക പുതിയ വെള്ളം നമ്മുടെ ഇപ്പം പ്രപഞ്ചത്തിലായിട്ട് വെള്ളം ഉണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് രാത്രി സമയത്താണ് നമുക്ക് നക്ഷത്രത്തിനെ നിരീക്ഷിക്കാനും ഇതാക്കാൻ നമുക്ക് കൂടുതലും പറ്റുന്നത് എന്നത് പറ്റുന്നത് എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത് ഇപ്പം പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ അതിനകത്ത് മിക്ക വേറെ തരത്തിലുള്ള ജീവികൾ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്